ചില സ്ഥലങ്ങളിൽ അതിഥികളെ എതിരേൽക്കാൻ ഇരിക്ക് വരൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നമ്മളോരോ കാര്യത്തിൽ നമ്മൾ ശ്രമിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലതിഥികൾ ചെല്ലുമ്പോൾ വീട്ടുകാർ വരൂ ഇരിക്കൂ എന്നൊക്കെ പറയാറുണ്ട് ഇരുന്നാട്ടെ എന്നു പറയും കേരളത്തിൻ്റെ വടക്കേയറ്റം തൊട്ട് തെക്കേയറ്റം വരെ സഞ്ചരിച്ചാൽ പലതരത്തിൽ മലയാളം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും മലയാള ഭാഷാഭേദങ്ങൾ തമ്മിലാണ് തിരുവന്തപുരം തൃശ്ശൂർ തൃശ്ശൂർ ഭാഷ നീട്ടികുറിക്കിയൊക്കെ പറയുന്നത് നമുക്ക് സാധിക്കും തിരുവന്തപുരത്തും ഏകദേശം ഏറ്റക്കുറച്ചിലുമുണ്ട് മലയാളം നമ്പൂതിരി മലയാളമെന്നു പറയാറുണ്ട് മലയാളത്തെ അപ്പോൾ ശരിയായിട്ടുള്ള മലയാളം നമ്മുടെ മലയാളം തന്നെയാണ് അങ്ങനെ വാമൊഴിയിൽ വ്യത്യസ്തത പുലർത്തുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഷ നമ്മുടെ പ്രയോഗം കൊണ്ടും ശൈലി കൊണ്ടും ചില സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ എന്താ പറയേണ്ടത് സ്വാഗതം ചെയ്യുന്നത് അതിഥികളെ സ സത്ക്കരിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട് അത് ഇരിക്കൂ താങ്കൾ അല്ലെങ്കിൽ വന്നാലും ഇരുന്നാലും എന്തൂട്ടാണ് എന്താകാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി തിരിച്ചും നമ്മൾ ഭാഷയിലുള്ള വൈകൽപ്യം നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതു തെറ്റായ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഭാഷയെ നന്നായ രീതിയിൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം ഭാഷയിലെ വൈ വൈകൃതം നമ്മളെല്ലാവരും സമന്മാരായുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ടു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഭാഷ എന്താണെന്ന് അല്ലേൽ ഭാഷയിൽ വകഭേദങ്ങളെന്താണെന്ന് നമ്മൾ എ എത്രയും നല്ല രീതിയിൽ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ത് എന്തൂട്ട് എന്നൊക്കെ തൃശ്ശൂരിലെ ഒരു കൊളോക്കിയൽ ഭാഷയാണ് എന്ത് എന്തൂട്ട് എന്നൊക്കെ പറയും പോലെ പാലക്കാട്ടും ഒറ്റപ്പാലത്തും മലയാള ഭാഷയോടുള്ള തനിമ നിലനിർത്തുന്ന രീതിയിലാണ് എല്ലായിടത്തും കണ്ണൂർ വയനാട് അതുപോലെത്തന്നെ പാലം ഒറ്റപ്പാലം പട്ടാമ്പി മലപ്പുറം ഓരൊരുത്തരുടെ അടുത്തും അതുപോലെ ആലപ്പുഴ ആലപ്പുഴ ഇവിടെയൊക്കെ എന്നതാ ഇത് അല്ലെ എന്താ എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത് എന്തൂട്ട് പല രീതിയിൽ നമുക്ക് ഭാഷയെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും മലപ്പുറം പെരുന്തൽമണ്ണ ഈ പലദേശത്തും പല പ്രദേശത്തും ഭാഷയോടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭാഷയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ടു നയിക്കുന്നത് അതായത് മലയാള ഭാഷ ഇല്ലാത്തൊരു പ്രദേശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ കേരളം മൊത്തം മലയാളികളുടെയൊരു ഉന്നമനമാണ് അതായത് കൂടുതലുമാളുകളും സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് അതിൽ ഭാഷയിലുള്ള വ്യത്യാസം മാത്രമേ ദേശ ദേശാന്തരങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏ ഏറെ ചൊല്ലും മലയാളഭാഷ ചില അല്പാല്പ വ്യത്യാസങ്ങളിലേക്ക് മാത്രമേ കടന്നു ചെല്ലുന്നുള്ളൂ പക്ഷെ അവരുടെ വാചാലതയിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ കാണുവാനായിട്ട് സാധിക്കും അതായത് ഭാഷാ വൈകൃതം മാറ്റിയെടുക്കുവാൻ ഭാഷ ശരിയായ ഭാഷ ആവശ്യമുള്ളത്